ബൈക്ക് ഓടിക്കാൻ എനിക്ക് ഭയങ്കരമിഷ്ടമാണ് ഞാൻ കുറേ പ്രാവശ്യം ബൈക്കോടിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലൊരു ബൈക്കുണ്ട് ഹിമാലയേൻ്റെ ബൈക്കുണ്ട് അതുമെടുത്തിട്ട് ഞാൻ അമ്മയെയും അച്ഛനെയും കൂട്ടിയിട്ട് കുറേ ട്രിപ്പെല്ലാം പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഇഷ്ടം സോളോ ട്രിപ്പാണ് ഇഷ്ടം അങ്ങനെ ഹിമാലയത്തിലേക്ക് ഒരു ദിവസം യാത്ര പോയിരുന്നു ആ നല്ലയൊരു രസം തന്നെയായിരുന്നു ലോങ്ങ് ഡ്രൈവെല്ലാം എനിക്ക് ഭയങ്കരമിഷ്ടമാണ് ഇപ്പോള് ജീപ്പിനെയും ബസ്സിനെയുംക്കാളെല്ലാം നല്ലത് ബൈക്കില് പോകുന്നത് തന്നെയാണ് ഒറ്റയ്ക്ക് ബൈക്കെടുത്ത് പോകുമ്പോളൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് രാത്രി പ്രത്യേകിച്ച് രാത്രി പോകുന്നതാണ് ഏറ്റവും നല്ലത് ഹൈവേയിലൂടെയെല്ലാം നല്ല സ്പീഡിൽ പോകാൻ പറ്റും എനർജിയെല്ലാം നല്ല ഇങ്ങനെ കൂടിക്കൂടി വരും ആ പിന്നെ ബൈക്കെടുത്തിട്ട് ഞാൻ ആ എല്ലാവരെയും കൂട്ടിയിട്ട് പൊതുവേ എൻ്റെ കുടുംബക്കാരെ എല്ലാവരെയും ഓരോ തവണയെങ്കിലും ഞാൻ എൻ്റെ ബൈക്കില് കയറ്റിയിട്ടുണ്ട് ഈ ബൈക്കെടുത്തിട്ട് ഞാൻ കുറേ രാജ്യങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട് ഇപ്പോള് എണ്ണയടിക്കാൻ പൈസയില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടാണുള്ളത് പരമാവധി എല്ലാവരും ബൈക്കെടുക്കുക ആ നല്ല രസമാണ് ഈ ബൈക്കില് പോകാന് ബസ്സിലാകുമ്പോള് മൊത്തം ഒച്ചപ്പാടും ബഹളവുമെല്ലാമായിരിക്കും ഇതാകുമ്പോള് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ബൈക്കെടുത്തിട്ട് പോകാം